പച്ചക്കറിയാണെങ്കിലും മീൻകറി ആണെങ്കിലും വലിയ കുഴപ്പമില്ലാതെ ഞാൻ ഉണ്ടാക്കും എനിക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് വളരെ ടെൻഷനേറിയ ഒരു പരിപാടിയാണ് ബിരിയാണി ആണെങ്കിൽ എന്നെ സംബന്ധിച്ചെടത്തോളം അത് ഈസിയാണ് പക്ഷേ നെയ് ചോറിൽ വെള്ളം കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ അത് പായസം പോലെയാകും വെള്ളം കൂടി കഴിഞ്ഞാൽ പായസം പോലെയാകും വെള്ളം കുറവാണെങ്കിൽ അത് വേവാതെയാവും അപ്പം അതെപ്പോഴും എനിക്ക് ടെൻഷനുള്ള ഒരു പരിപാടിയാണ് ഒരു പ്രാവശ്യം ഞാനുണ്ടാക്കിയപ്പോ വെള്ളം കൂടീട്ടത് ഇങ്ങനെ പായസം പോലെയായി പോയി അപ്പോ ബിരിയാണി ആവുമ്പോൾ നമ്മൾ വാർത്തെടുത്തിട്ട് ഉണ്ടാക്കുന്നതു കൊണ്ട് വലിയ ടെൻഷനൊന്നുമില്ല അപ്പം ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയത് കൊണ്ട് ഞാനെപ്പോഴും ബിരിയാണി തന്നെയാണ് ഇണ്ടാക്കാറ് ഈ ഒരു വെള്ളത്തിൻ്റെ പ്രശ്നം എനിക്കൊരു ടെൻഷൻ നിറഞ്ഞ പരിപാടിയാണ് അതുകൊണ്ട് ഞാൻ എപ്പോഴും ബിരിയാണിയാണ് ഉണ്ടാക്കാറ് നെയ്ചോറിനേക്കാളും